പതിനഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുവത്തി മൂന്ന് രണ്ട് രണ്ടായിരം മൂപ്പത് പത്ത് രണ്ടായിരത്തി രണ്ട് പത്തൊൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് നാല് രണ്ടായിരത്തി അഞ്ച്